മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുൻസിപ്പാലിറ്റിയിലാണ് ഞാൻ താമസിച്ച് വരുന്നത് ഞങ്ങളുടെ പ്രദേശത്ത് ഒരു ബിസ്നസ്സ് പ്രവർത്തനം നടത്താൻ ഉപകരിക്കുന്ന തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങൾ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് താരതമ്യേനെ കുറവാണ് എന്നിരുന്നാലും വെള്ളം ധാരാളമായി ലഭിക്കുന്ന പ്രദേശമായതിനാൽ ഇവിടെ മിനറൽ വാട്ടർ ബിസ്നസ്സ് നടത്താൻ സാധിക്കും കൂടാതെ മിക്ക വീടുകളിലും മാവ് പ്ലാവ് പപ്പായ തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ ഉണ്ട് കൂടാതെ മുരിങ്ങ മരം മത്തൻ പയർ കോവയ്ക്ക കുമ്പളം മുതലായ പച്ചക്കറികളും എല്ലാ വീടുകളിലും ഉൽപാദിപ്പിച്ച് വരുന്നു ഇവയെല്ലാം ഞങ്ങളുടെ വീട്ടിലുമുണ്ട് ഇത്തരം പ്രകൃതി വിഭവങ്ങൾ ലഭ്യമായത് കൊണ്ട് തന്നെ ഭക്ഷ്യ ഉല്പാദന മേഖലയിലും ഭക്ഷ്യ സംസ്കരണ മേഖലയിലുമെല്ലാം ബിസ്നസ്സ് നടത്താൻ ഞങ്ങളുടെ നാട് ഉപയോഗപ്രദമായിരിക്കും ഇത് കൂടാതെ അത്രത്തോളം വ്യാപകം അല്ലെങ്കിൽ കൂടെ കൃഷിയിടങ്ങൾ ഞങ്ങളുടെ പ്രദേശത്ത് ഉണ്ട് ഇവിടെ ഇവിടങ്ങളിൽ നെല്ല് കവുങ്ങ് പോലുള്ളവ ഉൽപാദിപ്പിച്ച് വരുന്നു അത്കൊണ്ട് തന്നെ നെല്ല് സംസ്കരണവുമായി ബന്ധപ്പെട്ട ബിസ്നസ്സിനും ഞങ്ങളുടെ നാട് ആപ്പ്റ്റാണ് കൂടാതെ ഈ പാടത്തെ മണ്ണ് നമുക്ക് ഇഷ്ടിക ഓട് മുതലായവ ഉല്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും അത്കൊണ്ട് തന്നെ ഇത്തരം ഫാക്ടറികൾ ഇത്തരം ബിസ്നസ്സ് നടത്തുന്നതിനും ഞങ്ങളുടെ നാട് ഉം ഉപയോഗപ്രദമാണ് ഇത് കൂടാതെ ആട് കോഴി പശു മുതലായ കന്ന്കാലികളെയും വളർത്തുന്നതിനാൽ മുട്ടയുൽപാദനം പാൽ ഉല്പാദനം പാൽ സംസ്കരണം മുതലായ ബിസ്നസ്സ് നടത്തുന്നതിനും ഞങ്ങളുടെ പ്രദേശം ലഭ്യമാണ് അത് കൂടെ ഇത്തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളാണ് ഞങ്ങളുടെ നാട്ടിൽ കൂടുതലായി കണ്ട് വരുന്നത് അതല്ലാതെ പെട്രോളിയം പോലുള്ള ഇന്ധനങ്ങളോ അതിൻ്റെ ഒന്നും സാനിധ്യം നിലവിൽ ഞങ്ങളുടെ നാട്ടിൽ ലഭ്യമായിട്ടില്ല അത്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബിസ്നസ്സ് പ്രവർത്തനങ്ങൾക്കൊന്നും ഞങ്ങളുടെ നാട് ഉപകാരപ്രദമല്ല നിലവിൽ വെള്ളം അത് പോലെ മണ്ണ് ഇഷ്ടിക ഭക്ഷ്യോല്പാദന മേഖല ഇവയുമായി ബന്ധപ്പെട്ട ബിസ്നസ്സ് പ്രവർത്തങ്ങൾ നടത്തുന്നതിനാവശ്യമായ പ്രകൃതി വിഭവങ്ങളാണ് ഞങ്ങളുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ളത് നിലവിൽ അത്തരം ബിസ്നസ്സ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞങ്ങളുടെ നാട് വളരെ ആപ്പ്റ്റായ ഒന്നായിരിക്കും എന്നിരുന്നാലും ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിക്കൂട എന്നൊന്നുമില്ല